നമുക്ക് എല്ലാം സമയത്തും വൈദ്യുതി ലഭിക്കാറുണ്ട് പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്തൊക്കെയാണ് വൈദ്യുതി മുടങ്ങുന്നത് കാരണം ആ സമയത്താണ് നമുക്ക് മരമോ അങ്ങനെയെന്തെങ്കിലും ഇപ്പം ചില്ലകളോ അങ്ങനെന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്ള്ളത് പിന്നെ ഒരു ആഴ്ച ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കരണ്ടിണ്ടാവില്ല ഇപ്പം കെഎസ്ഈബീന വിളിച്ച തന്നെ അവർ ഫോണറ്റൻഡ് ചെയ്യില്ല അവർ ഫോണ് എന്താചെയ്യ പഴയ ലാൻഡ് ഫോണാണിരിക്കുന്നത് അതെട്ത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനു അകത്തു ടൂ ടൂ എന്നൊരു സൗണ്ടല്ലാണ്ട് വേറൊന്നും തന്നെ കേൾക്കില്ല അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളോണ്ട് രണ്ടോ മൂന്നോ ദിവസം വൈകാറുണ്ട് വേറെ ആരെങ്കിലും ഇപ്പം അവിടെ പോയി പറഞ്ഞാലൊക്കെയാണ് ചില സമയത്തവർ വന്നു നന്നാക്കു അ പക്ഷേ അവർക്കും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെയുണ്ട് കാരണം ഇപ്പം മഴക്കാലത്താണെങ്കിലും ഏത് സമയത്തായാലും അത് ഹർത്താലുള്ളൊരു സമയത്താണെങ്കിലും അവരിപ്പം കരണ്ട് പോയി കഴിഞ്ഞാൽ സ്പോട്ടിലവിടെ വന്ന് നന്നാക്കിയിരിക്കണം എന്നാണല്ലോ ഇപ്പോഴത്തെ സർക്കാരും എല്ലാവരും പറയുന്നത് നമ്മളാണെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യലോ ശല്യം ചെയ്യല് അപ്പോൾ അതൊക്കെ കൊണ്ടവർക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്കിത്ര രണ്ട് മൂന്നോ ദിവസമൊക്കെ കറൻറ്റ് കിട്ടാണ്ടായിട്ടും ഉണ്ട് നമ്മളെ നമ്മക്കിപ്പം എന്തെങ്കിലും വർക്ക് ഇപ്പം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നോർക്കാണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഫോണിന് ചാർജില്ലാത്ത അവസ്ഥ ആരു ആയിട്ടും വിളിച്ചാലൊരു കോണ്ടാക്റ്റില്ലാത്ത അവസ്ഥ ഇപ്പഴത്തെ ഒരു സാഹചര്യനുസരിച്ച് മൊബെയിലില്ലാണ്ട് ഒരാൾക്കും ജീവിക്കാനുള്ളൊരു ഇത് ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും വൈദ്യുതി മുടക്കം കൊണ്ടുണ്ടാവാറുണ്ട്